ലോ ഡെമോസ് ഫിഷ് മാർക്കറ്റ് അല്ലേ ഈ കിടങ്ങറയിൽ ഉള്ളത് ഞങ്ങൾക്കേ അത്യാവശ്യമായിട്ട് കുറച്ച് മീൻ വേണമായിരുന്നു ഒരു ഒരു കിലോ കരിമീൻ ഉണ്ടോ ഓ ഏതാണ് ഉള്ളത് മതി ഉള്ളത് മതി ആർക്കും കൊടുക്കല്ലേ ഇപ്പോൾ ഒ ഉള്ളത് വെച്ചേക്കാമോ ആ എടുത്തുവെച്ചേക്കാമോ ഞങ്ങൾ ഇപ്പം ആരെയെങ്കിലും അങ്ങോട്ട് പറഞ്ഞുവിട്ടേക്കാം ഞാൻ അവിടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ ഇങ്ങോട്ടൊന്ന് പ കൊടുത്തുവിടാനായിട്ട് ഇവിടെ ഞാൻ മാത്രം ആണോ എന്നാൽ കുറച്ച് സമയം എടുക്കുമായിരിക്കും എന്നാലും ഒരാളെ അങ്ങോട്ട് വിടാം സാധനം ആർക്കും കൊടുത്തുവയ്ക്കല്ലേ കരിമീൻ ഞങ്ങൾക്ക് വേണമായിരുന്നു ആ ക്ലീൻ ചെയ്താൽ അത് അത്രയും നല്ല കാര്യം ആ അത് കുഴപ്പമില്ല എനിക്ക് മീൻ കിട്ടണം അത്രയേ ഉള്ളൂ

ആ ശരി ശരി ഒരുപാട് വില ആവുമോ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വേണ്ട കരിമീൻ മാത്രം വേറെ എന്നാ ഒക്കെ ഉള്ളത് ഓ അയ്യോ തീ വിലയാണല്ലോ

ആ ഞാൻ എന്തായാലും എന്തായാലും ഞാൻ ഇപ്പോൾ ഒരു ചെറുക്കനെ അങ്ങോട്ട് വിട്ടേക്കാം അവൻറെ കയ്യിൽ കരിമീൻ കൊടുത്ത് വിട് ഇപ്പം ഞാൻ ആ ആ ശരി ശരി അപ്പം പൈസ ഞാൻ അവൻറെ കയ്യിൽ കൊടുത്ത് വിടുന്നത് എത്രയാണെന്ന് ആ അവൻറെ നിന്ന് തന്നെ വാങ്ങിച്ച്

ആ കുറച്ച് സമയം എടുക്കും അവൻ ഇവിടെ ഇല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞ് വിട്ടേക്കാം ആ ശരി ശരി